ഞങ്ങളുടെ പ്രദേശത്ത് നേരിടുന്ന പ്രധാന ഒരു പാരിസ്ഥിക വെല്ലുവിളി എന്ന് പറയുന്നത് വയലുകൾ നികത്തി വീടുകൾ പണിയുക വ്യവസായങ്ങൾ പണിയുക എന്നുള്ളതാണ് ഇതിനെതിരെ ഞങ്ങൾ വളരെ പ്രധിഷേധ പൂർണ്ണമായ ഒരു സംഘടന രൂപീകരിക്കുകയും പ്രതിഷേധിക്കുകയും അതിനെതിരെ ആയി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്